ഇപ്പോൾ കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിനോദസഞ്ചാരങ്ങൾ ഇഷ്ടം പോലെയുണ്ട് കേരളത്തിൽ തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ കോഴിക്കോട് തന്നെ കുറേയധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട് മാനാഞ്ചിറ ഉണ്ട് പിന്നേ നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കുറേയുണ്ട് പിന്നേ തുഷാരഗിരി വെള്ളച്ചാട്ടം ഉണ്ട് നമുക്കവിടെയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പോയി കുളിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം ട്രക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെയുണ്ട് പിന്നെ ക്യാമ്പിംഗ് പിന്നെ കുട്ടവഞ്ചി അടവിക്കോ ഇക്കോ ടൂറിസം അങ്ങനത്തെ ഒരു ടൂറിസവും കാര്യങ്ങളൊക്കയുണ്ട് നമുക്കവിടെ പോയിട്ട് നല്ല രീതിയിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ ഒരു പറമ്പിക്കുളം ദ്വീപ് എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദ്വീപാണ് നമുക്ക് എന്താ പറയുക ഇപ്പം നമ്മൾ വെള്ളത്തിൽ അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ഒരു ദ്വീപ് പോലെയൊക്കെയാണ് അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് ആ ദ്വീപ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് അവിടെ ക്യാമ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ട്രക്കിങ്ങിനു പറ്റിയ അഗസ്ത്യാർ അഗസ്ത്യാർകൂടം കൊടുമുടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലാണുള്ളത് അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും